ആ ഉറപ്പായിട്ടും എനിക്ക് പാട്ട് പാടാനെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അത് ഇപ്പോഴെന്നല്ല അത് എപ്പോഴും ആയാലും ഏത് വർക്കിൽ വിളിച്ചിട്ട് ഇപ്പോൾ ചോദിച്ചാലും പാട്ടു പാടാന് ഇഷ്ടമാണ് അതു മാത്രമല്ല ഇത് ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പാടിക്കൊണ്ട് പാട്ട് പടിച്ചിട്ടില്ല എന്തായാലും കേട്ടിട്ട് പടിച്ചിട്ട് പാടാറുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും മൽസരം ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ സ്കൂൾ കോമ്പിറ്റീഷൻ ആയെങ്കിലും മദ്രസ്സ കോമ്പിറ്റീഷൻസ് ആയെങ്കിലും അങ്ങനെ ഓരോ ലെവൽ ഇത് ഓരോരോ കോമ്പിറ്റീഷൻസില് പങ്കെടുക്കാറുണ്ട് ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അപ്പോൾ പാട്ടിനോട് എപ്പോൾ ആയാലും ഒരിഷ്ടം എപ്പോഴും ഉള്ളതാണ് എല്ലാ പാട്ടും കേട്ടോ കേൾക്കും മലയാളമായാലും ഹിന്ദി ആയാലും തമിഴായാലും എല്ലാ പാട്ടും കേൾക്കാറുണ്ട് പിന്നെ പാട്ട് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നുള്ളത് എന്താണ് ആ പാ ഏതൊരു പാട്ട് എടുത്തു നോക്കിയാലും ആ പാട്ടിൽ ഒരർത്ഥമുണ്ടാവും ആ ഒരു പാട്ടിന് ഒരു ഒരു കഥയുണ്ടാകും ആ കഥയും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പാട്ടിനെ മനസ്സിലാക്കാൻ നോക്കിയാൽ നമുക്ക് എത്ര ആയാലും ആ പാട്ട് മടുക്കൂല അപ്പോൾ ഏതൊരു ഒരു ഒരു എക്സാമ്പിളായിട്ട് പറയാണെങ്കിൽ ഒരു നമ്മൾ സാധാരണ ഒരു പഴയ കാല പഴയ കാലത്തുള്ള ഒരു പാട്ട് ഒരു സിനിമയിലെ പാട്ടാണെങ്കിൽ അത് ആ സിനിമ ആ പാട്ട് എന്തിനെക്കുറിച്ചിട്ടാണെങ്കിലും ആ സിനിമേലെന്താണ് ഇപ്പോൾ കടലിനെക്കുറിച്ചിട്ടായിരിക്കും അതല്ലെങ്കിൽ മീൻ പിടിക്കുന്നതിനെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ ആ പാട്ട് വരുന്നുണ്ടാവുക ആ കടൽത്തെയും മീനിൻ്റെയും കടൽക്കരയിലുള്ള ആൾക്കാരെപ്പറ്റിയിട്ടും അവിടുത്തെ ജനങ്ങളുടെ ജീവിത ശൈലിനെപ്പറ്റിയിട്ടും അങ്ങനെയെല്ലാമായിരിക്കും ആ ഒരു പാട്ടിലുണ്ടാവുക അങ്ങനെ ഏത് ലവ് സ്റ്റോറി ആയാലും അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരിതിലായിരിക്കും എല്ലാ ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ ഒരു പാട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ വെറുതെ കേട്ടിട്ട് ഒരു പാടുന്നതിന് പകരമായിട്ട് ആ പാട്ടിനെ മനസ്സിലാക്കിയിട്ട് ആ പാട്ടിൽ എന്താ അർഥമുള്ളത് എന്ന് മനസ്സിൽ നോക്കിയിട്ട് വെച്ചിട്ട് അത് പഠിച്ചിട്ട് പാടുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു പാട്ടിനോട് ഇൻറ്ററെസ്റ്റ് ഉണ്ടാവും അതുമാത്രമല്ല ആ പാട്ട് നമുക്ക് പിന്നെ ഒരിക്കലും മറക്കില്ല എപ്പോഴായാലും ആ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ നമുക്കൊരു ഓർമ്മയുണ്ടാകും